തക്കാളിയുണ്ടോ തക്കാളിക്കെന്താ ആ തക്കാളിക്കെന്താണ്

അൽഷെയാ ആ ഇതിപ്പോൾ ഹോം മെയ്ഡാണോ അല്ലെങ്കിൽ പിന്നേ മറ്റുള്ള സ്ഥലങ്ങളിന്ന് വരുന്നെയാണോ

എളവൻ അങ്ങനത്തെ സാധനങ്ങളോ ആ ഈ ബ്രോക്കോളി എന്ന് പറയുന്ന സാധനുണ്ടേൽ അതിങ്ങെടുത്തേ എന്താ വില വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയോ ഓക്കെ ഓക്കെ ഓക്കെ വേറെ നല്ല പിന്നെ പച്ചക്കറി അല്ലാതെ ഹോം മേയ്ടായിട്ടുള്ള പച്ചക്കറി എന്തൊക്കെയായുള്ളത് ഹോം മേയ്ടായിട്ടുള്ളത് ആ ആ ആ ആ ആ ആ

പച്ചമുളകിന് എന്താ വില കിലോയ്ക്ക് നൂറ് രൂപ തക്ക ക്യാരറ്റ് ക്യാരറ്റ് ക്യാരറ്റ് എൺപത് പിന്നേ വേറേ എന്തൂട്ടാ അതിന്റെ പേര് പറഞ്ഞേ ഈ ഉരുളകിഴങ്ങ് പോലത്തന്നെ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട് അതുണ്ടോ ഇവിടെ മധുരക്കെഴങ്ങല്ല ഉരുളക്കിഴങ്ങ് പോലെ തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ പക്ഷേ അത് വള്ളീലുണ്ടാകുന്നതാണ് അത് ഹോം മേയ്ടിലൊക്കെയാണ് അധികം കണ്ട് വരാറ് ആ ഈ കയ്പക്കാ എങ്ങനാ വില വരുന്നത് കൈപ്പക്കാ ഹോം മെയ്ഡല്ലേ അതോ വരവോ ആ

പിന്നെ ഉള്ളിയോ മുപ്പത് കിലോയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപയല്ലേ ആ ഓക്കെ ബീൻസോ എഴുപത് പിന്നേ അതീ ബ്രോക്കോളി നമുക്ക് പിന്നെ എത്ര വേര് വേണവെങ്കിലും കിട്ടുവല്ലോ അല്ലേ നമുക്കൊരു കുറച്ച് അല്ല കുറച്ച് കൂടിയ കൂടിയ തോതിൽ കിട്ടുവോ നമുക്ക് ഒരു പത്ത് ഇരുപത് മുപ്പത് കിലോ ആ ഒരു ബേസിൽ കിട്ടുവോ ഓക്കെ പിന്നതുപോലെ കിട്ടുന്ന ഫ്രൂട്സ് വേറേതാ ഉള്ളത് ഫ്രൂട്സല്ല വെജിറ്റെബിൾസ് ആ നിങ്ങൾ ഹോൾസെയിലാണോ ഹോൾസെയിലായിട്ട് ചെയ്യുന്നത്

റീറ്റെയിലാകുമ്പോൾ അത് വലിയ വ്യത്യാസം ഒന്നും വരൂല ഹോൾസെയിലാകുമ്പോൾ കുറച്ച് വ്യതാസം ഉണ്ടാവും ആ ഓക്കെ ഓക്കെ എന്നാൽ ശരി എന്നാൽ